ഞാൻ എൻ്റെ അച്ചച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു ഫാമിൽ പശുക്കളെയാണ് നോക്കാറുള്ളത് അത് എൻ്റെ ചെറിയച്ഛനും അച്ചാച്ചനും ഒക്കെ അതിനെ പരിപാലിക്കാറുണ്ട് അച്ഛനും ഒക്കെ അതിന് കൂടാറുണ്ട് ഞാനതിന് പുല്ലിട്ട് കൊടുക്കുകയും പോയപ്പെലറ്റെടുത്തു കൊടുക്കുകയും അവിടെ വൃത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ഈയൊരു കുറേ മൃഗങ്ങളെ പരിപാലിക്കാൻ എനിക്ക് കുറേ പേർ സഹായത്തിനായി ഉണ്ട് നിങ്ങൾ എൻ്റെ അച്ഛാച്ചൻ്റെ ഫാമിലാണ് ഞാൻ മൃഗങ്ങളെ പരിപാലിക്കുന്നത് അവിടെ ഒരു പശു പശുത്തൊഴുത്തായതുകൊണ്ട് ചാണകവും അതേപോലെ തന്നെ ഈച്ചയും ഒക്കെ അവിടെ സർവ്വസാധാരണമാണ് എന്നാലും ഞങ്ങളതിനെതിരെയുള്ള പ്രതിരോധ മരുന്നും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഈച്ചക്കെതിരെ ഉള്ള അത് കഴിഞ്ഞ് ചാണകം പെട്ടെന്ന് തന്നെ അവിടെനിന്ന് നീക്കം ചെയ്യാനും ഒക്കെയുള്ള പല വഴികളും ഞങ്ങൾ എടുക്കാറുണ്ട്